ഇപ്പോള് നിലവിലത്തെ ഒരു ആഗ്രഹം വെച്ച് ബൈക്ക് കൊണ്ട് കാശ്മീര് പോകണമെന്നാണ് ഒരാഗ്രഹം അവിടെ നല്ല തണുപ്പുള്ള മഞ്ഞൊക്കെ വീഴുന്ന സമയത്ത് ബൈക്ക് കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകണമെന്നാണ് ആഗ്രഹം പൊതുവെ ഇപ്പോൾ എല്ലാവരുടെയും തന്നെ ആഗ്രഹം അതാണ്

ഇന്ത്യ മൊത്തം ചുറ്റണം എന്നുള്ളതൊക്കെ ആളുകളുടെ പൊതുവായിട്ടുള്ള താത്പര്യമാണ് നല്ല പൈസ ചിലവുള്ള കാര്യമാണ് അതുകൊണ്ട് ജോലിയുള്ള ആളുകളൊക്കെയാണ് പൊതുവേ പോകുന്നത് കാരണം ഇതിൻ്റെ ചിലവുകളൊക്കെ താങ്ങാൻ എല്ലാവർക്കും സാധിക്കണം എന്നില്ല നല്ല ജോലിയും നല്ല ബൈക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ് പൊതുവേ ഈ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ യാത്ര മൊത്തം നല്ല രീതിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബൈക്കുകൾ വേണം യാത്രകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്ക എന്നാലെ നല്ല രീതിക്ക് നമുക്ക് യാത്രകള് അധികം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള യാത്രാ പോവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ